എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ഗുരു എന്ന് പറയുന്നത് ഞങ്ങളുടെ പള്ളീലെ സൺ ഡേ സൺ ഡേ സ്കൂൾ അധ്യാപകരും സിസ്റ്റേഴ്സ്സെക്കെ ഉണ്ടായിരുന്നു അവരുടെ സിസ്റ്റേഴ്സ്മാർ അവരാണ് ഞങ്ങൾക്ക് പാട്ടിൻ്റെ പറ്റി ഉള്ള ഞങ്ങളെ മുന്നോട്ട് പോകാൻ മുമ്പിൽ നിർത്തി പാടുക പാടാനായിട്ടും ഒക്കെ പഠിപ്പിക്കുന്നതും അതിൽ നിന്നാണ് അവരിൽ നിന്നാണ് കൂടുതൽ ഞങ്ങൾക്ക് ഈ പാട്ടിൻ്റെ മേഖലകളിലേക്ക് വരാനും ഒക്കെയായിട്ട് പറ്റിയിട്ടുള്ളത് കൂടുതലായിട്ട് പാടാൻ കഴിയുന്നില്ല എങ്കിൽ തന്നെയും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ഞങ്ങളെല്ലാവരും പള്ളീലെക്കെ ഞങ്ങൾ പാട്ട് പള്ളിയിലെ പ്രാർത്ഥനകളിലൊക്കെ ഞങ്ങൾ പാട്ടൊക്കെ നല്ലതുപോലെ പാടുമായിരുന്നു അപ്പം ഞങ്ങളുടെ എൻ്റെ സഹോദരൻ എൻ്റെ സിസ്റ്റേഴ്സ് രണ്ട് പേരുണ്ടായിരുന്നു അവർ നല്ല പോലെ പാടും എൻറ്റൊരു ചേട്ടനുണ്ട് പുള്ളീം കുറച്ചക്കെ പള്ളീലെ പരിപാടികൾക്കെക്കെ പങ്കെടുക്കേം പള്ളിയുടെ ആരാധന പ്ര സമയങ്ങളിലൊക്കെ പാടുകയൊക്കെ ചെയ്യുന്ന ആൾ ഞങ്ങളങ്ങനെ പാടീട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പാട്ടിനകത്ത് കൂടുതൽ താല്പര്യമൊക്കെ കുറച്ചുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഗുരുക്കന്മാരായിട്ട് പറയാനായിട്ട് ഇല്ല എങ്കിൽ തന്നെയും പിന്നെ ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ സൺ ഡേ സ്കൂളിൽ ഞങ്ങൾ പഠിച്ചപ്പോഴും പിന്നെ അധ്യാപകരായിട്ട് ഉള്ളൊരു നം ഈ പറഞ്ഞ് തന്നിട്ടുള്ള ആ ഒരു ഒരു ഇതുവെച്ചും അവരുടെ പ്രോത്സാഹനോം മാത്രമാണ് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടീട്ടുള്ളത് അത് വെച്ചൊക്കെ അവരക്കെ നല്ല രീതീൽ ഞങ്ങൾക്ക് ഈ പാട്ടുകൾനെപ്പറ്റിയും പാടിക്കഴിയുമ്പോൾ നല്ല പ്രചോദനം നല്ലതാ ടൂണായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അപ്പം വീണ്ടും വീണ്ടും ഞങ്ങൾക്കത് വീണ്ടും പാടാനും പിന്നെ ഞങ്ങളുടെ പ്രധാനമായിട്ട് ഞങ്ങളുടെ ആരാധന പ്രാർത്ഥന കുർബാന സമയങ്ങളിലക്കെ ഞങ്ങൾക്കത് കൂടുതൽ ഞങ്ങളെ മുൻ നിർത്തി മുന്നിൽ നിർത്തി ഞങ്ങളുടെ സിസ്റ്റേഴ്സും അധ്യാപകരും ഒക്കെ ഞങ്ങളെ കൊണ്ട് പാടിപ്പിക്കേം ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പവരുടെ ഒരു ഒരു താല്പര്യോം അവരുടെ ആ ഒരു പ്രോത്സാഹനമൊക്കെ നമുക്ക് കൂടുതലായിട്ട് പാടുന്നതിനും അതിനെപ്പറ്റിയൊക്കെ അവർ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു നല്ല താല്പര്യങ്ങളെ ഞങ്ങൾ കൂടുതലായിട്ട് അതിനായിട്ട് സമയത്ത് ചെയ്യാനും ഒക്കെ സമ്മ കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ പാടാനൊക്കെ ന്നെ ഈ പാട്ടൊക്കെ കൂടുതലും സ്കൂളിലായാലും മറ്റു ഈ കവിതകളൊക്കെ ചൊല്ലിക്കാനും ഒക്കെ ഞങ്ങളെ ടീച്ചർമാർ അങ്ങനെയൊക്കെ ചൊല്ലിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിലൊക്കെ വെച്ച് ഞങ്ങളുടെ ടൂണൊക്കെ കുറച്ചൊക്കെ അറിയാനൊക്കെ സാധിച്ചിട്ടുണ്ട് പിന്നെ പള്ളിയിലാണ് കൂടുതലും ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ പള്ളീൽ ആരാധന സമയത്തൊക്കെ ആയോണ്ട് ഞങ്ങളിങ്ങനെ കേന്ദ്രി നമ്മൾ മുൻ ലീഡ് ചെയ്യാനയിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മുടെ അധ്യാപകരും മത അധ്യാപകരും പിന്നെ സൺ ഡേ ടീച്ചർ അച്ഛനും പിന്നെ സിസ്റ്റേഴ്സൊക്കെ നമുക്ക് അതിനായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അവർ ഞങ്ങളെ മുന്നിൽ നിർത്തി ഞങ്ങളെക്കൊണ്ട് ലീഡ് ചെയ്യിപ്പിക്കേം

സാധിച്ചിട്ടുണ്ട് അവർ നല്ല മാതൃകയായിരുന്നു അവർ നല്ല ടി സിസ്റ്റേഴ്സ് ആയിരുന്നു അവർ കൂടുതലായിട്ട് അവർ ടൂണൊക്കെ പഠിപ്പിച്ച് തരേം നമുക്ക് നമ്മൾ തെറ്റിപ്പോയാലും അവർ നല്ലപോലെ നമ്മളെ ക്ഷമിച്ച് രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് നമുക്ക് പറഞ്ഞ് തരുകയും നമ്മളെക്കൊണ്ട് പാടിപ്പിക്കേം പിന്നെ നമ്മൾ നേരെ ഓരോരോ ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ നമ്മളുടെ സമയം നമുക്ക് അവസരങ്ങൾ തരിക ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ വെച്ച് ഞങ്ങൾക്ക് അതിനകത്ത് കൂടുതലായിട്ട് അവരെ ഓർക്കുന്നുണ്ട് ഇപ്പോഴും അവർ ആ പറഞ്ഞ് തന്ന ആ കാര്യങ്ങൾ ഇപ്പം നമ്മുടെ മനസ്സിലുണ്ട് അവരെപ്പറ്റി നമുക്ക് നല്ല കാര്യങ്ങളും മാത്രേ ഓർക്കാനുള്ളൂ നല്ല ചെറുപ്പകാലത്തൊക്കെ അവരാ സിസ്റ്റേഴ്സൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടീട്ട് അപ്പം അത് നമ്മുടെ കാര്യങ്ങളിൽ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട് അവരെപ്പറ്റിയുള്ള അനുഭവങ്ങളും അവരുടെ ആ നമ്മളെ ആ പഠിപ്പിച്ച രീതികളും അവരുടെ ആ പെരുമാറ്റങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഓരോന്നും ഓരോ നമ്മളുടെ ഓർമ്മയിൽ വരുന്നുണ്ട് അപ്പോൾ നല്ല നല്ല അനുഭവങ്ങളായിരുന്നു അവരുടെ സമയങ്ങളിലൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് നല്ലതുപോലെ സംര നമ്മളെ അവർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും പറ്റീട്ടുണ്ട്